ഞാന് എന്നെ എൻ്റെ സ്വന്തം വീട്ടിലുള്ളപ്പോൾ ഞാനധികം പാചകമൊന്നും ചെയ്യാറില്ല ഇല്ലായിരുന്നു വിവാഹം ചെയ്തതിനു ശേഷം അവിടെ പോയതിനുശേഷം അങ്ങനെ അറിയില്ലായിരുന്നു അപ്പൊൾ അവിടെപ്പോയാൽ പിന്നെ കുറച്ച് നിന്ന് എല്ലാവരുടെയും കൂടെ കൂടി എല്ലാം കണ്ട് പഠിച്ച് അതിനു ശേഷാണ് പാചകം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഒരു മാതിരിയൊക്കെ ചെയ്യാനറിയാം ഒരു വിധം ഡിഷൊക്കെ ചെയ്യാനറിയാം പിന്നെ അനുഭവങ്ങളെന്നുവെച്ചാൽ ആദ്യാദ്യം ഒന്നും ചെയ്യാനറിയില്ല ഇങ്ങനെ നോക്കി നിക്കുവായിരുന്നു ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്ക കഴിക്കും ഇതേ പിന്നെ പിന്നെ ആദ്യായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരിക്കുന്നു ടേസ്റ്റ് ഉണ്ടാവോ അല്ലെങ്കില് എന്താവുന്നൊക്കെ വിചാരിച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല ചെയ്തു തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു